ഇന്നത്തെ കാലത്ത്ഏറ്റവും ഉപയോഗിക്കുന്ന അപ്പുകളെന്നു പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് യൂട്യൂബ് പിന്നെ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്ത് കൂടുതലായിട്ട് ഫേസ്ബുക്ക് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് നമുക്ക് പ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾ ഒക്കെ നമ്മുടെ അറിയാവുന്ന നമ്മുടെ കൂടെ പഠിച്ച പിള്ള കുട്ടികൾ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളെ പരിചയക്കാരൊക്കെ ബന്ധങ്ങളെ പുല കൊണ്ടുവരാനുള്ളൊരു ഒരു സാഹചര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ പുതിയ പുതിയ അറിവുകൾ വാർത്തകൾ ഇതെല്ലാം തന്നെ ഒത്തിരി കിട്ടുന്നുണ്ട് ഇതിനകത്തു നിന്നു പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ അറിയാനും ഡോക്ടർസിൻറ്റെ ഡോക്ടർസ് പറയുന്ന നമ്മുടെ ഹെൽത്ത് വയസ്സായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർസ് പറയുന്നത് എല്ലാം തന്നെ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന് പക്ഷെ ഇതിനെക്കാളും ക്കെ ഉപരിയായിട്ട് കുഞ്ഞുങ്ങൾ അത് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദം ആണെങ്കിൽ പോലും അതിലേറെ ദോഷ ഗുണങ്ങൾ ഉണ്ടാകുന്നു കാരണം കുഞ്ഞുങ്ങൾ ഇതിനകത്ത് അഡിക്റ്റായി ഇരിക്കുവാ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഗെയിമുകൾ കളിയും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് അക്ഷരങ്ങൾ വായിക്കാനോ എഴുതാനോ പറയാനോ മറ്റുള്ളവറോടു സംസാരിക്കാൻ പോലും കുഞു ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കു വന്നിരിക്കുകയാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഇരിക്കാൻ ഒരു റ്റെൻഡൻസി പോലും കിട്ടുന്നില്ല ഇതിൻറ്റെ ഒക്കെ ഉപയോഗം കാരണം കുഞ്ഞുങ്ങൾ വളരെയധികം എന്തോ പറയുന്ന ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്കു പോകുക കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്തത് എങ്ങനെ പോകണം ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണമെന്നു പോലും എങ്ങനെയാണ് മുന്നോട്ടു പോകണ്ടേ ആൾക്കാരെ എങ്ങനെ ബഹുമാനിക്കണം ആൾക്കാരുമായിട്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപെഴുകണം ഒന്നും കുഞ്ഞുങ്ങൾക്ക് അറിയാൻ മേലാത്ത സാഹചര്യത്തിലേക്കാണ് ഇ ആപ്പുകളുടെ ഉപയോഗം ഒക്കെ വന്നു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഉള്ള പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾപക്വതയിൽ എത്തുമ്പോൾ അറിയേണ്ടതായപല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം ആവശ്യമില്ലാത്ത വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ചില കുട്ടികൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഇതിൻറ്റെ ഒക്കെ ഉപയോഗം വന്നിട്ടുണ്ട്